ഞങ്ങളുടെ നാട്ടിൽ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം മിക്ക കുട്ടികളും മിക്കകുട്ടികളെന്നല്ല എല്ലാകുട്ടികളും പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും പോയി ഉപരിപഠനത്തിനു ചേരുന്നതാണ് കണ്ടുവരുന്നത് കാരണം നാട്ടിൽ നിന്നിട്ട് വലിയ പ്രയോജനം ഇല്ല ജോലി സാദ്ധ്യത കുറവു വിദ്യാഭ്യാസത്തിനും എല്ലാം വളരെ പുറകോട്ടായതുകൊണ്ട് എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെയാണ് പോകുന്നത് ഡിഗ്രിക്കും നേഴ്സിങ്ങൊക്കെ പഠിക്കാനും പുറത്തേക്കു പോയി ബാംഗ്ലൂർ ഹൈദ്രാബാദ് അവിടെയെല്ലാം പോയി പഠിച്ച് അതിനുശഷം വേ എക്സാം എഴുതി പുറത്തു രാജ്യങ്ങളിലേക്കു പോകുന്നതാണ് കണ്ടുവരുന്നത് പിന്നെ ആൺകുട്ടികളായാലും ഇതുപോലെതന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിനുശേഷം പുറത്തേക്കു കയറിപോകുന്നതാണ് കണ്ടുവരുന്ന ഒരു രീതി അത് കുറേ വർഷങ്ങളായിട്ട് ഇതുതന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു കുഴപ്പം തന്നെയാണ് ഉപരിപഠനത്തിനുള്ള സാദ്ധ്യത നമ്മുടെ രാജ്യത്ത് കുറവായതുകൊണ്ടല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ രാജ്യം പിന്നോക്കം ആയതുകൊണ്ട് അല്ല പുറത്തു രാജ്യത്തു പോയാലുള്ള സാദ്ധ്യതകൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജോലിസാദ്ധ്യതകൾ വളരെ കുറവാണ് ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞവർക്ക് വെറുതെ നാട്ടിൽ നടക്കാനെ സാധിക്കത്തുള്ളൂ പുറത്തേക്കു പോയാലവർക്കു ജോലി സാദ്ധ്യത കൂടുതലാണ് എന്തും ജോലിക്കു കയറാൻ സാധിക്കും ഐ ടി മേഖലയിലേക്കും പലതരം ഓഫീസുകളിലേക്കൊക്കെ ജോലിസാദ്ധ്യത ഈ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കു കൂടുതലാണ് അവിടെ ചെന്ന് ഡിഗ്രി കഴിഞ്ഞവർക്കും ആ ഉപരിപഠനം ചെയ്തതിനു ശേഷം ആ കമ്പനികളിൽത്തന്നെ കയറാനും ഒക്കെ സാധിക്കും അതുകൊണ്ടാണ് മിക്കകുട്ടികളും ഈ രാജ്യത്തു നിൽക്കാതെ സ്വന്തം പ്രദേശത്തു നിൽക്കാതെ പുറത്തേക്കു പോകുന്നതിനുള്ള കാരണം കുടുംബ ബിസിനസ്സ് നോക്കി ഇവിടെ നിൽക്കാൻ സാധിച്ചേനെ പക്ഷേ ഇവിടെ നിന്നിട്ടും വലിയ പ്രയോജനമില്ല ബിസിനസ്സൊക്കെ പാളിപ്പോയാലും വെറുതെ ഇവിടിരിക്കാം എന്നുള്ള ഈ രീതിയിലാണ് കുട്ടികളെല്ലാവരും കയറിപ്പോകുന്നത് അതു കുട്ടികളെ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഇവിടുത്തെ ജോലിസാദ്ധ്യതയും ഇവിടുത്തെ ഈ രീതികളും ഒക്കെ കൊണ്ടുതന്നെയാണ് കുട്ടികൾ കയറിപ്പോകുന്നത്

കുടുംബബിസിനെസ്സിൽ തുടരുകയും നമ്മുടെ ദേശത്തു തന്നെ ജോലിക്കു പോകുകയും സർക്കാർ മേഖലയിലേക്ക് കൂടുതൽ തസ്തികകൾ രൂപീകരിക്കയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ മാക്സിമം ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും സർക്കാർ ജോലിയാണ് നാട്ടിലുള്ളവർ നോക്കുന്നത് കാരണം സർക്കാർ ജോലിക്കു മാത്രമേ ഒരു ഉറപ്പുള്ളൂ പ്രൈവറ്റ് മേഖലകളിലാണെങ്കിൽ ജോലിസാദ്ധ്യത കുറവാണ് എപ്പോൾ വേണേലും പിരിച്ചുവിടാം പിന്നെ അവരുടെ ഭാവി എന്താകും അതുകൊണ്ടാണ് നാട്ടിൽ നിൽക്കാൻ കൂട്ടാക്കാത്തതും പുറത്തുപോയി പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്താലും അവിടുന്ന് നമുക്ക് പി എഫും അതുകണക്കല്ലേ കുറേ സംഭവങ്ങൾ കിട്ടി നമ്മുടെ ഭാവി സുരക്ഷിതവും അതാണ് എല്ലാ കുട്ടികളും തന്നെ നോക്കുന്നതും അതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്കു പോകുന്നതും നമ്മുടെ നാട്ടിൽത്തന്നെ ഈ പ്രൈവറ്റ് മേഖലകളിൽ ജോലി സാദ്ധ്യത കൂട്ടുകയോ ആ ഭാവി സുരക്ഷിതമാക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയോ അങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സർക്കാർ രൂപീകൃതമായ കുറേ ജോലിസാദ്ധ്യതകളും കൂടുതൽ ജോലികളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളേ ഇവിടെ പിടിച്ചുനിർത്താൻ സാധിക്കും ഡിഗ്രി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ജോലി സാദ്ധ്യത ജോലി കൊടുക്കുകയും അവരേ ഡിഗ്രി കഴിഞ്ഞിട്ടും ഉള്ള വിദ്യാഭ്യാസത്തിനു ഇപ്പോൾ ബി എസ് സി കഴിഞ്ഞിട്ട് എം എസ് സി ക്കോ പി ജിക്കോ അങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാണെങ്കിൽ കുട്ടികളെ ഇവിടെ നിർത്താൻ സാധിക്കും അതി അതിനനുസരിച്ചുള്ള അവരുടെ വിദ്യാഭ്യാസത്തിനു അനുസരിച്ചുള്ള ജോലികൾ അവർക്കു നാട്ടിൽത്തന്നെ ഒരുക്കുകയാണെങ്കിൽ അവർക്കതു കൂടുതൽ പ്രയോജനമാകും കുട്ടികളെ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ പിള്ളേർക്ക് ഒരു വിലയുമില്ല എന്നാണ് നാട്ടുകാരൊരിത് ടി വെറുതെ ഒരു ഡിഗ്രി മാത്രമാക്കാതെ അതിനു ശേഷമുള്ള ഉപരിപഠനത്തിനു പോകുകയും അവരുടെ ആ വിദ്യാഭ്യാസ യോ യോഗ്യതക്കനുസരിച്ചുള്ള ജോലികൾ ഇവിടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികൾ ഇവിടെ നിർത്താൻ സഹായിക്കും കുട്ടികൾക്കു നാട്ടിൽ നിൽക്കാനായിട്ട് ഇൻട്രസ്റ്റും ആകും കുട്ടികൾക്കു പറഞ്ഞാൽ നാട്ടിൽത്തന്നെ നിൽക്കാനാണ് ഇഷ്ടം പക്ഷെ അവരുടെ ഭാവിയോർത്താണ് അവർ വിദേശങ്ങളിലേക്കു പോകുന്നതും അവർ ഭാവി സുരക്ഷിതമാക്കാനും വീട്ടുകളിലെ പ്രശ്നം അതൊക്കെകൊണ്ടാണവർ വിദേശത്തേക്കു പോകുന്നത് അല്ലാതെ കുട്ടികൾക്കു വിദേശത്തേക്കു പോകണം അടിച്ചുപൊളിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല വിദേശത്തു പോയാലും നമ്മുടെ കുട്ടികൾ അവിടെ നിന്നു കഷ്ടപ്പെടുകയാണ് അപ്പം സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു വിലയൊക്കെ കിട്ടുന്നത് പുറത്തു പോയാൽ നമ്മൾ പുറത്തു നിന്നു വന്ന ആൾക്കാരാണ് നമ്മളെ അവരുടെ രാജ്യക്കാരായിട്ടു കൂട്ടുക അവരുടെ പ്രദേശത്തുള്ളവരായിട്ട് കുട്ടുകയൊന്നും ചെയ്യത്തില്ല നമ്മൾ എപ്പോഴും പുറത്തു നിന്നു വന്നവരാണ് അപ്പം സ്വന്തം നാട്ടിൽ കിട്ടുന്ന വില പുറത്തെവിടെപ്പോയാലും കിട്ടത്തില്ല അപ്പം അതൊക്കെയാണ് കുട്ടികളെ വിദേശത്തേക്കു കൊണ്ടുപോകാനായിട്ടു നോക്കുന്നത്